നമുക്ക് ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജില്ലയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കി ഒരുപാട് പ്രാദേശിക വിദ്യാഭ്യാസം പഠനങ്ങൾ അവസരങ്ങൾ ഒക്കെ നമുക്ക് ഒരുപാടുണ്ട് ഇപ്പം ഇന്ന് വെച്ചിട്ടുണ്ടെങ്കി നമുക്ക് അതായത് നമ്മുടെ ജില്ലാ എന്ന് വെച്ചിട്ടുണ്ടെങ്കി വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജില്ലയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് വളർച്ചയ്ക്ക് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാദേശിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠന അവസരങ്ങള് വികസന വളർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട് മുൻപന്തിയിൽ തന്നെയാണ് പിന്നെന്നുവെച്ചാൽ അതായത് നമുക്ക് പ്രശസ്ത ആയിട്ടുള്ള കോച്ചിംഗ് ക്ലാസുകൾ നമുക്ക് ഒരുപാടുണ്ട് പിന്നെ എൻട്രൻസ് പ്രൈപ് സെന്ററുകളുടെ അതായത് പിന്നെ അങ്ങനെ സെൻററുകൾ അങ്ങനെയുള്ള ഒരുപാട് ഇത് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കി പറയാം പിന്നെ അതേ സർക്കാർ സ്കൂളുകൾ ഒരുപാടുണ്ട് അതായത് സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ ഒക്കെ നല്ല അടിപൊളിയാണ് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും സർക്കാർ സ്കൂളുകളിൽ കാര്യങ്ങളിലൊക്കെ ഉണ്ട് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട് കാലിക്കറ്റിലെ പിന്നെ മലബാർ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഉണ്ട് പിന്നെ ഫറൂഖ് കോളേജ് ഇതൊക്കെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള കോളേജുകളാണ്